ആ അതേ അതേ ആ മൃഗങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ ആരോഗ്യം സംരക്ഷിക്കണം അതെന്തെങ്കിലും രോഗം ഉണ്ടോ ആരോഗ്യമൊക്കെ എങ്ങനെ ഇരിക്കുന്നു അതെല്ലാം നിരീക്ഷിക്കണം ഭക്ഷണം കൃത്യ സമയത്തൊക്കെ കൊടുക്കും രാവിലെ കൊടുക്കും രാത്രിയിൽ കൊടുക്കും ഉച്ചയ്ക്ക് കൊടുക്കുന്നില്ല രണ്ടു നേരം മതി ആ മൃഗത്തിന് ആ കൊടുക്കും കൊടുക്കും കൊടുക്കും കൊടുക്കും അത് തിന്നില്ല അസുഖം വന്നാൽ മൃഗഡോക്ടറെ വിളിക്കും അവരെ കാണിക്കും അവർ വേണ്ട നിർദേശങ്ങൾ തരും മരുന്ന് തരും പിന്നെ അത് രോഗം പോകുന്ന വരെ അവർ അതിനെ നിരീക്ഷിച്ച് കൊണ്ടിരിക്കും പിന്നെ വേണ്ട അതിന് വേണ്ട എല്ലാ ശ്രുശൂഷയും ചെയ്യും അത്രയും ഒക്കെ ഉള്ളു ആ ചില മൃഗങ്ങൾക്ക് ഒക്കെ ചിലപ്പോൾ എങ്ങാനും ഒക്കെ വല്ലപ്പോഴും യാദൃശ്ചികമായിട്ട് ആ അങ്ങനെ വയ്യായ്ക ഉണ്ടാകും ഒരു സിംഹത്തിനെ ആ കേട്ടില്ല പറ ആ ത ആ അതിൻ്റെ കാലിനൊരു അപ്പോൾ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ആ ഇല്ല ഇല്ല ഇല്ല ഇല്ല നമ്മൾ സ്നേഹിക്കുന്നത് മൃഗശാല അല്ലേ അപ്പോൾ പല സൈസ്സ് മൃഗങ്ങളുണ്ട് എല്ലാ മൃഗങ്ങളേയും ഇഷ്ടമാണ് മ്മ് ആരുമില്ല ഉപദ്രവകാരികൾ ആരുമില്ല ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ഇല്ല ഇല്ല വെള്ളം ആനയാണ് അതൊക്കെ നല്ല മറ്റ് ആനകൾക്ക് മറ്റുള്ള ആനകൾക്ക് കൊടുക്കുന്നത് പോലെ അങ്ങനെ കൊടുത്താൽ മതി വേറെ അ മൃഗങ്ങളെ സംബന്ധിച്ച് വരാറൊന്നും ഇല്ല ഇവിടെ

പിന്നെ പക്ഷികൾ വേറെ സൈസ്സ് പക്ഷികൾ ഒക്കെയുണ്ട്

ആ പുതിയ അത് വേറെ ആൾക്കാർ വേറെ ആൾക്കാരുണ്ട്

ആ അതൊക്കെ കറക്റ്റാണ് കേട്ടില്ല ആ ഉണ്ട് ഉണ്ട് ഉണ്ട് കേട്ടില്ല നീ പറയുന്നത് കേട്ടില്ല നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് നാലു മണിക്ക് കാപ്പി വൈകുന്നേരം അത്താഴം അ ആ കൊണ്ടുവരും കൊണ്ടുവരും ഞങ്ങൾക്ക് ഉള്ള ഭക്ഷണം അവിടെ തന്നെ ഉണ്ടാക്കും

അല്ലല്ലല്ല വ്യാഴാഴ്ച്ച ഉണ്ട് മ്മ് ഞങ്ങൾ മൃഗങ്ങളെ

ആ ശരി